കാലാവസ്ഥ വ്യതിയാനങ്ങൾ പ്രദേശത്ത് കൃഷിയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഇപ്പം വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഒരുപാട് കൃഷി നമ്മുടെ വാഴ അതുപോലെ തന്നെ നെൽകൃഷികളെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അവരുടെ സമ്പാദ്യം മൊത്തം വച്ചിട്ടാണ് വിത്തുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ വിളവ് ഇറുക്കുന്നത് അതെല്ലാം നശിച്ചു പോകുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റായിട്ട് ലാഭമായിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോഴുള്ള അയാൾ പിന്നീട് ലോൺ എടുത്തിട്ട് വേണം ജീവിതം പുലർത്തണമെങ്കിൽ അല്ലെങ്കിൽ ലോണ് എടുത്തിട്ട് മറ്റുള്ള പ്രവർത്തികൾ മറ്റുള്ള ജോലി ചെയ്തതിനു ശേഷം വേണം കൃഷിയിലേക്ക് തിരിയാൻ അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താണ് കൃഷി അവിടെ ഇല്ലാണ്ടായി പോവുകയാണ് കൃഷിയിലൂടെ വരുമാനം ഒന്നും കിട്ടാതായാൽ കൃഷി ആരെങ്കിലും ചെയ്യുമോ അപ്പോൾ അതെല്ലാം വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇപ്പം വരൾച്ച വരുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് എന്താണ് കൃഷികളെല്ലാം നശിക്കാണ് ഇപ്പോൾ പൊള്ളുന്ന വെയിലാവുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ വരെ നമുക്ക് വെള്ളം കിട്ടുന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്മളെ പച്ചക്കറിക്ക് അതുപോലെ തന്നെ കൃഷികൾകൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ നമ്മുടെ നമുക്ക് കുടിക്കാൻ വെള്ളം മാത്രമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ കരിഞ്ഞു പോവുകയാണ് ബാക്കിയുള്ള ചെടികളെല്ലാം ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ കാലാവസ്ഥ വ്യത്യാസം നല്ല പ്രധാനപ്പെട്ട രീതിയിൽ മറ്റുള്ള ആളുകളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ചുഴലിക്കാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് വരുന്ന സമയത്ത് വാഴ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഉള്ളത് ഇപ്പോൾ എനിക്ക് പരിചയത്തിൽ കൃഷി വാഴകൃഷി നമ്മുടെ അത്യാവശ്യ നല്ല പൈസയും വളത്തിനും ഇതിനെല്ലാം ഉപയോഗിച്ചു കൊണ്ട് വാഴകൃഷി നടത്തി ഒരു കാറ്റ് വന്നതിനു ശേഷം അതെല്ലാം ഒടിഞ്ഞുവീഴുകയും ചെയ്യുന്നു അപ്പം അതുവഴി അവരുടെ ആ ഒരു വർഷത്തെ വരുമാനമാനമാണ് ഇല്ലാണ്ടായി പോവുന്നത് അവരുടെ ജീവിതം പുലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വരുമാന മാർഗം തന്നെ ഇല്ലാണ്ടാവുമ്പോൾ അവർ നന്നായിട്ട് ബുദ്ധിമുട്ടുകയാണ് ചെയ്യുന്നത് അപ്പം കർഷകർക്ക് ഇങ്ങനെ നഷ്ടങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങൾ ഇതല്ലാതെ വേറെ ഉണ്ടാവുന്നില്ല അപ്പം അവർ ലോൺ എടുക്കുകയും അത് ഈ കടങ്ങളെല്ലാം വീട്ടി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഈ കടുത്ത ഓരോ കാലാവസ്ഥ വ്യത്യാസത്തിന് അനുസരിച്ച് അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് നന്നായിട്ട്